പിന്നെൻ്റേ സെക്കൻഡ് പ്രൊഡക്ട് എതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പം ഒരഞ്ചാറ് ദിവസമായി മെടിച്ചിട്ട് ഹെഡ് സെറ്റ് ആണ് അപ്പം ഹെഡ് സെറ്റ് എന്നു വെച്ചാൽ അത്യാവശ്യം നല്ല നല്ല സൗണ്ടോണ്ട് പിന്നെ നമുക്ക് കോളൊക്കെ ചെയ്യാം നല്ല ഇതാണ് നമ്മൾ അതിൻ്റെ ഉപകാരം ഉപയോഗങ്ങളെന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബസ്സിലോക്കെ പോകുമ്പോൾ നമുക്ക് ഫോണ് ഡയറക്റ്റായിട്ട് ചെവിയിൽ വയ്ക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കേട്ടുന്ന് വരില്ല പക്ഷേ ഹെഡ് സെറ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കേൾക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ അതുപോലെ തന്നെ പിന്നെ നമുക്ക് പിന്നെ വണ്ടീയിൽ പാട്ടൊക്കെ കേൾക്കണേൽ വണ്ടി പോകുമ്പോൾ കുറേ ദൂരെ യാത്രയൊക്കെയാണെങ്കിൽ വണ്ടി പോകുമ്പോൾ പാട്ടൊക്കെ കേൾക്കണേൽ നമുക്ക് ചേവിയിലോക്കെവച്ചിട്ട് വെച്ചാൽ മതി നമുക്കുറങ്ങാനും അങ്ങനത്തെ നല്ല സുഖമാണ് പിന്നെ ഇതിൻ്റെ നെഗറ്റീവെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെവിയിൽ വെയ്ക്കുമ്പോൾ ഒരു രണ്ട് നമ്മൾ രണ്ട് ചെവിയിലും വെയ്ക്കുമ്പോൾ ഒന്ന് നമുക്ക് ഊരിപ്പോകും അപ്പോൾ ആ ഒരു പ്രശ്നം ഭയങ്കരമാണ് പിന്നെ ചെവിയിലങ്ങനെ നിൽക്കുന്നില്ല അങ്ങനത്തൊരു പ്രശ്നമുണ്ട് അതോക്കെയാണ് ഇതിൻ്റെ നെഗറ്റീവ് മെയിനായിട്ട് അപ്പോൾ നമ്മൾ കോളോക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇത് ഊരി പോയിട്ടുണ്ടെങ്കിൽ നമുക്കതൊരു ഇറിട്ടേഷനായി തോന്നൂലെ അപ്പോൾ അതാണ് ഇതിൻ്റെ നെഗറ്റീവ്